ആ ഹലോ ഇത് ഇറാനി ഹോട്ടലല്ലേ ആ ഞാൻ കഴക്കുന്നം വികാസ് ഭവനീന്നാണേ വിളിക്കുന്നത് ആ എൻ്റെ പേര് സൂര്യ ആ ഞാൻ ഒരു കുഴിമന്തി ഓർഡർ ചെയ്യാനായിട്ടാണ് വിളിക്കുന്നത് ആ ഒരു ഫുള്ള് ആ അതെ അതെ ആ ഒരു ഫുള്ള് മതി അല്ല നമ്മുടെ വീട്ടിൽ കുറച്ച് മെബേഴ്സ് ഒക്കെ ഇന്നു വരുന്നുണ്ട് അപ്പം അതിനായിട്ടാണ് ആ ആ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ നിങ്ങൾ കൊടുത്തു വിടണം കേട്ടോ ആ മയോണൈസും സോസും ഒക്കെ വേണം ആ ഒരു ഏകദേശം ഒരു പത്തു പേരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ളത് കൊടുത്തു വിടണേ ആ മാക്സിമം ബഡ്ജറ്റ് കുറക്കാൻ നോക്കണേ ആ ആ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് മെസേജ് ഇടണോ അതോ ഞാൻ പറഞ്ഞാൽ മതിയോ ആ ഓക്കെ ഞാൻ പറഞ്ഞു തരാം ആ അത് നമ്മുടെ ഈ ആട്ടുകൽ കഴക്കുന്നം അറിയാവോ ആ കഴക്കുന്ന് വന്നിട്ട് അവിടെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഈ എസ് എൻ ഡി പി ഉണ്ടല്ലോ ഗുരുമന്ദിരം എസ് എൻ ഡി പി ആ അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കാണിക്കവഞ്ചി ഉണ്ട് ആ അവിടെന്ന് നേരെ താഴോട്ടു വരുമ്പോഴ്ത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വൈറ്റ് പെയിൻ്റടിച്ച ഒരു വീടുണ്ട് അതാണ് വീട് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ അതന്നെ അതന്നെ അതാണ് വീട് ആ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്ന കൊടുത്തു വിടണേ നിങ്ങളുടെ ഹോട്ടലിനെ കുറിച്ചൊക്കെ നല്ല ഒരു റിവ്യൂ ആണ് ഞാൻ കേട്ടത് അപ്പം അങ്ങനെ ആണേൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ മെബേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് ട്രീറ്റ് ചെയ്യണമല്ലോ ആ ആ നല്ലതായിട്ടൊക്കെ ഒന്ന് കൊടുത്തു വിടണേ ഇത് നിങ്ങളുടെ ഫുഡ് കൊണ്ടു വന്നത് നല്ലതാണെങ്കിൽ മാത്രമേ കുറെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാനും കുറച്ചു ഫ്രണ്ട്സും കൂടി അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയാണ് ആ അപ്പം നിങ്ങൾ കൊണ്ടു വരുന്ന ഫുഡ് നല്ലതാണെങ്കിൽ മാത്രം നമ്മൾ അങ്ങോട്ട് വന്നാൽ മതീലോ ആ ആ ആ ശരി ആ അപ്പം ലൊക്കേഷൻ ഇത് അത് വന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് ഒന്ന് വിളിച്ചാൽ മതി ആ അറിയാമോ ആ ശരി ശരി അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട നല്ല ഫ്രഷ് ആയിരിക്കണം ആ ഓക്കെ ഓക്കെ ഓ ഓ ശരി ശരി